ഹലോ സർ ഇത് ഓപ്പോ എയിറ്റ് ത്രീ വൺ കമ്പനിയിൽ നിന്നുമാണ് വിളിക്കുന്നത് സാറിന് മനസിലായി എന്ന് വിചാരിക്കുന്നു ഇത് മൊബൈൽ ഷോപ്പാണ് അപ്പോൾ നമ്മുടെ പുതിയ പ്രോഡക്ട് ആയ ഓപ്പോ എയിറ്റ് ത്രീ വണ്ണിനെക്കുറിച്ച് പറയാൻ ആണ് ഞാൻ വിളിക്കുന്നത് സർ ഒരു രക്ഷയും ഇല്ലാത്ത ഫോൺ ആണ് സർ കുറേ കുറേ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് ഈ ഫോണിന് ഡിസ്കൗണ്ട് ഉണ്ട് സർ ഈ ഒരു ടൈം ആയത് കൊണ്ടു തന്നെ ഓഫേർസും ഉണ്ട് സർ സാറിന് ഈ ഫോണ് വാങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സർ നമ്മുടെ കമ്പനിയിലേക്ക് വരുക നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് സാറിന് പറഞ്ഞു തരാം എന്നിട്ട് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരു ആപ്പ് ഉണ്ട് സർ അപ്പോൾ അതിൽ സാറിന് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് സർ ഇപ്പം നമ്മുടെ ഈ ഫോണിന് ഒരു വർഷത്തെ ഗാരണ്ടി ഉണ്ട് അപ്പോൾ സാറിന് എന്ത് എന്ത് പ്രോബ്ലവും ഈ ഫോണിന് ഫോണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്ചെയ്ഞ്ച് ചെയ്ത് തരുകയോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് തരുന്നതാണ് സർ അപ്പോൾ സാറിന് ഈ പ്രോഡക്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സർ എന്തായാലും നിർബന്ധമായിട്ടും വാങ്ങാൻ വരണം സർ